ആ ചേട്ടാ പിന്നേ ഓണത്തിനിടാൻ പറ്റിയ നല്ല പൂക്കൾ ആവശ്യമുണ്ട് ആ നമ്മൾക്ക് ചെണ്ടുമല്ലി വേണം

ചെണ്ടുമല്ലി ചെണ്ടുമല്ലി മറ്റേ ഓറഞ്ച് കളർ ഓറഞ്ച് കളർ അതൊരു പന്ത്രണ്ട് കിലോ പിന്നെ വാടാമല്ലിയുണ്ടോ ആ വാടാമല്ലിയും വേണം അത് ഓർഡർ തന്നിട്ടു പോവാം നിങ്ങളെത്തിച്ചു തന്നാൽമതി ആ ആ മഞ്ഞ ഒരു അഞ്ച് എടുക്ക്

ആ ജമന്തി എടുത്തോളു ആ അതൊരു പത്തെടുത്തോ വാടാമല്ലിയാണോ അതൊരു ആ അതൊരു പത്ത്

അപ്പോ റോസും മഞ്ഞയും എടുക്കാം പത്തു കിലോ എടുക്കാം ആ ഏ വെള്ളയോ റോസോ എന്നാൽപ്പിന്നെ റോസെടുക്കാം

റോസ് റോസ് പന്ത്രണ്ടെണ്ണം എടുക്കണം അ അരളീൻ്റെ തന്നെ ഒരു വെള്ളയും എടുത്തോളൂ അത് പത്തു കിലോ എടുത്തോ ആ

എനിക്ക് ഇത് നാളേക്കു വേണ്ടിവരും

ഞാൻ വൈകുന്നേരം വരാം ആ അഞ്ചു മണിക്കുമുമ്പെ അഞ്ച് മണിക്ക് മുമ്പെ എത്താം വലിയ റോസിനൊക്കെ എന്താ വില

ആ അതൊരു പത്തു മതി ആ ആ അതെ നമുക്ക് അതിനകത്തുനിന്നു താമര എടുക്കാം മറ്റന്നാൾ ആ മറ്റന്നാളേക്ക് ഉപയോഗിക്കാനാണ് നാളെ കിട്ടണം ആ ഒരു പേക്ക് ചെയ്താൽമതി ആ അതെ ആ അഡ്രസ്സ് ഇപ്പോൾ എത്രയായി നിങ്ങളെ ഇത് അപ്പോൾ ആ അഡ്വാൻസ് ഒരു മൂവായിരം തരാം

ആ അ

ഓക്കെ ആ ആ ആ